സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്പോർട്സിനെക്കാളും കൂടുതൽ കലാപരമായിട്ടുള്ള പരിപാടികൾക്കായിരുന്നു ഓട്ടം ഓട്ടത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ നാടകം കഥാപ്രസംഗം ഒപ്പന അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകൾക്കായിരുന്നു കൂടുതൽ താല്പര്യം അതിന് എല്ലാം പങ്കെടുക്കുമായിരുന്നു അതിനെല്ലാത്തിനും സമ്മാനം കിട്ടുമായിരുന്നു പിന്നെ പത്താം ക്ലാസ്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കോളേജിലൊക്കെ പ്ലസ് വണ്ണും പ്ലസ്ടുൻ്റെ സമയത്തൊന്നും പഠിക്കാൻ സാധിച്ചില്ല നാടകം നന്നായിട്ട് കളിക്കുമായിരുന്നു മൂന്നുനാല് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ആ നാടകത്തിനൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിട്ട് സമ്മാനം കിട്ടി നാടകത്തിന് സമ്മാനം കിട്ടി അങ്ങനെ അത് ഭയങ്കര ഇഷ്ടം ഉള്ള ഒരു പരിപാടിയായിരുന്നു നാടകം അതുപോലെത്തന്നെ കഥാപ്രസംഗവും അതൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആ കഴിവ് ആ വാസനയുണ്ട് അത് സാഹചര്യങ്ങൾ ഒക്കെ വന്ന് കഴിയുമ്പോൾ അത് ഉപയോഗിക്കും പക്ഷെ ഇപ്പോൾ ഒക്കെ നമ്മുടെയൊക്കെ മുമ്പിൽ പുതിയ പുതിയ തലമുറകൾ വന്ന് പോവുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല പറയാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള വേദിയില്ല കാരണം പുതിയ പുതിയ തലമുറകളിപ്പം വന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അവർ കളിക്കുന്നു പാടുന്നു ആടുന്നു കലാപരമായിട്ടും കായികപരമായിട്ടും അവർക്ക് നല്ല നല്ല കഴിവുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ആ അന്നുണ്ടായിരുന്ന ആ ആഗ്രഹം ഒന്നും ഇപ്പം നമുക്ക് സാധിക്കുന്നില്ല പക്ഷെ സമ്മാനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്കൂളുകളിലൊക്കെ പഠനത്തിനൊക്കെ ആണെങ്കിലും ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ചതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കൈയെഴുത്ത് മാസികക്കൊക്കെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും ലഭിച്ചില്ല പിന്നെ ഓരോ ക്ലാസ്സിലും പഠിക്കുമ്പോൾ സ്പോർട്സിനാണെങ്കിൽ ഓട്ടത്തിന് പിന്നെ കലാ കലാപരമായിട്ടുള്ള ഡാൻസിന് നാടകത്തിന് അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല കാരണം ഇപ്പം അതിനുള്ള കുടുംബ ഒരു കുടുംബ കുടുംബിനിയായി കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു മക്കളായി അപ്പം മക്കൾ അവർ കാര്യങ്ങൾ ചെയ്യുന്നു അവരുടെ കല വളർത്തുന്നു അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ ദൈവകൃപയാൽ അവർക്ക് കിട്ടുന്നു അപ്പം നമുക്കതൊരു സന്തോഷമാണ് എനിക്ക് കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മക്കളിലൂടെ അത് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ മകളിലൂടെ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നോർക്കുമ്പം അതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഇതൊക്കെ കിട്ടി ഇതൊക്കെ ലഭിച്ചിരുന്നു പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചില്ല പിന്നെ അതൊക്കെ നമ്മുടെ മക്കളിലൂടെ അല്ല കുഞ്ഞുങ്ങളിലൂടെ അതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതലും കലയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരുന്നു പാട്ടു പാടാൻ ഇഷ്ടമായിരുന്നു കഥാപ്രസംഗം പറയുമായിരുന്നു നാടകം കളിക്കുമായിരുന്നു പിന്നെ ഇപ്പം അതിൻ്റെ വാസന ഉള്ളിലുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ലഭ്യമാകുന്നില്ല